ഹലോ ആരാണ് വിളിക്കുന്നത് ആ ആ അതെ അതെ അതെ ഹോട്ടൽ ആര്യാസ് പിന്നെയെന്താ ഫുഡൊക്കെ ഉണ്ട് ഏത് ഏത് ഐറ്റമാണ് വേണ്ടത് വെജിറ്റബിള് വേണോ നോൺവെജിറ്റബിള് വേണോ ആ ആ ആ ആ മസാലദോശ ഉണ്ട് സാധാ ദോശ ഉണ്ട് ഇഡ്ഡലി ഉണ്ട് സാമ്പാറുണ്ട് പൊറോട്ട ഉണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം പത്ത് പേരല്ലേ ആ ആ ഉണ്ട് ഉണ്ട് പാർക്കിങ്ങ് സൗകര്യം ഉണ്ട് ബാത്രൂം സൗകര്യം ഉണ്ട് എല്ലാ പരിപാടികളും ഉണ്ട് ഇപ്പോൾ രാവിലെ കാരണം കുഴപ്പം ഇല്ല നിങ്ങൾ പോര് ഒരു കുഴപ്പവും ഇല്ല

ആ ജസ്റ്റ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് അകലമേ ഉള്ളൂ നിങ്ങൾ നേരെ വണ്ടി വിട്ടിങ്ങ് പോരുക എന്നിട്ട് ലെഫ്റ്റിലേക്ക് ഒരു വളവുണ്ട് അന്നേരം നമ്മളെ ബോർഡ് കാണാം അവിടെ ഒരു ആ അവിടെ നിന്ന് നേരെ ഇങ്ങ് വന്നാൽമതി ആ ആ ആ അത് കുഴപ്പം ഇല്ല അത് കുഴപ്പം ഇല്ല നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ മതി നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തേക്കാം അപ്പോൾ ഈ എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെ ആണോ ആ അത് ഒന്നും കുഴപ്പം ഇല്ല ഇവിടെ വന്നു കയിഞ്ഞിട്ട് പറഞ്ഞാലും മതി നമുക്ക് ഇവിടെ സാധനം അവൈലബിളായിട്ടുണ്ട് ആ ആ ആ ആ ആ ആ കുഴപ്പം ഇല്ല ആ ആ ആ ആ അത് കുഴപ്പം ഇല്ല ഇവിടെ എല്ലാ സൗകര്യം ഉണ്ട് നിങ്ങൾ നേരെ ഇങ്ങ് പോന്നാൽ മതി ആ ആ നമ്മുടെ പേരെന്താണെന്നാണ് പറഞ്ഞത് പേരെന്താണെന്നാണ് പറഞ്ഞത് ആ ശരി ഓക്കെ ഓക്കെ ഓക്കെ

അതെ